ഹലോ ഞാനേ ഈ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കുറിച്ച് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നേ ഞാൻ കുറച്ച് പുറത്തുനിന്നാണ് വിളിക്കണത് തമിഴ്നാട് ആ ഭാഗത്തുനിന്നായിരുന്നു ഇവിടെ വയനാട്ടിൽ വയനാട്ടിൽ ആയിരുന്നു ഇപ്പം കേരളത്തിലെ ഏറ്റവും നല്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൾക്ക് ഒരു

ഇപ്പം ഞങ്ങൾ വായനാട്ടിലാണ് ഉള്ളത് അപ്പം നമുക്ക് നമ്മുടെ ചുറ്റും ഉള്ള ഹോസ്പിറ്റൽ എന്ന് ഏതെങ്കിലും കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം നമുക്ക് അവിടെ ബൈ സ്റ്റാൻഡ് ആയിട്ട് എത്ര പേർ നിൽക്കാം അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അവിടുത്തെ പിന്നെ ചികിത്സേൻ്റെ കാര്യങ്ങൾ അവർ എങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നും കൂടെ അറിയണമല്ലോ പിന്നെ അവിടുത്തെ ചാർജ് ഇൻ അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ എത്ര രൂപ ഫീ വരും മിനിമം പ്രൈവറ്റ് മതി ഡോക്ടേഴ്സും നല്ല ക്വാളിറ്റി ഉള്ള അതായത് നല്ല ഡോക്ടേഴ്സ് ആയിരിക്കണം

നമുക്ക് ഈ ബൈ സ്റ്റാൻഡ് ആയിട്ട് അവർ എത്ര പേരെ നിർത്തും അവിടെ ഓക്കെ മ് മ് മ് അങ്ങനെ ഒരു കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു അപ്പം പിന്നെ ആ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു കുഴപ്പം ഒന്നുമില്ല അപ്പം ഒരു പിന്നെ ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിലേ നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസും വേണം ആൾ കാം ആയിരിക്കുകയും വേണമല്ലോ

ആയിക്കോട്ടെ ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം എന്നാൽ ശരി താങ്ക് യൂ